ആ സർ ഒരു നിമിഷം എന്നെ ഒന്ന് സഹായിക്കാമോ ഞാൻ യൂട്ടിലിറ്റി ബില് എടുക്കാൻവേണ്ടി പോയി എനിക്ക് വിലാസം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോള് ഇനിയിപ്പോള് എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല അപ്പോള് ഡിജിലോക്കറിന്ന് എൻറെ യൂട്ടിലിറ്റി ബില് എടുത്ത് എൻറെ വിലാസം തെളിയിക്കാൻ നിങ്ങള്ക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എനിക്ക് നാളെയാണെങ്കിൽ എന്റെ വിസാ കാലാവധി തീരുകയാണ് നാളെ എത്തണം ദയവായി എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ സാർ പിന്നെ ഞാന് വരുന്ന തിരക്ക് കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ വിട്ടുപോയി ഇതിന് മുന്നേ ഇതുപോലൊരു അവസ്ഥ ഉണ്ടായപ്പോള് എന്നെ ഇവിടുന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ ഞാനല്ലെങ്കിൽ എൻറെ പിന്നെ അടുത്ത സുഹൃത്തുക്കളുണ്ട് ഇവിടെ അവര് വിളിച്ചിട്ട് കൊണ്ടുവരാൻ പറയാണോ അതോ നിങ്ങള്ക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് പ്ലീസ്